ഹലോ സാർ ഞാൻ സൊമാറ്റോയിൽ നിന്ന് ഫുഡ് ഓഡർ ചെയ്തിരുന്നു എനിക്കത് ഇപ്പോൾ റദ്ദാക്കണം എൻ്റെ കയ്യിൽ അതിനുള്ള അതിനാവശ്യമായ പൈസയില്ല എനിക്ക് അതു റദ്ദാക്കിയെ പറ്റു അതിന് ഞാനെന്തു നിലപാടാണെടുക്കേണ്ടത് അതിന് ഞാനാദ്യമായി എന്തു ചെയ്യണം ഞാൻ ഓഡർ ചെയ്ത ഫുഡ് ചിക്കനാണ് എനിക്കത് ഇപ്പോൾ റദ്ദാക്കണമെന്നുണ്ട് ഓഡർ ക്യാൻസൽ ചെയ്യണം അതിനായി ഞാൻ എന്ത് നിലപാടെടുക്കണം എൻ ആദ്യമായി എന്തു ചെയ്തിട്ട് എന്തു ചെയ്യണം എന്നൊന്നു പറഞ്ഞു തരുമോ